പത്രം റേഡിയോ ടി വി ഇൻ്റർനെറ്റ് എന്നിവ ഒക്കെയാണ് വാർത്താമാധ്യമങ്ങളുടെ പ്ലാറ്റുഫോമുകൾ കാലം മാറുന്നതിന് അനുസരിച്ചു ഇവയ്ക്കെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് പണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് വാർത്തയൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ വാർത്ത അറിയണമെങ്കിൽ നാളെ പത്രം വരുന്നതു വരെ കാത്തിരിക്കണമായിരുന്നു എന്നാൽ അത് നൂറ് ശതമാനം ശരിയും ആയിരിക്കണമെന്നില്ല അങ്ങനെ പോകപ്പോകെ ടീവിയിൽ ന്യൂസ് വാർത്തകൾ വന്നു തുടങ്ങി നമുക്ക് അപ്പം എന്തെങ്കിലും വാർത്ത അറിഞ്ഞാൽ അന്നു തന്നെ വാർത്ത അറിയാം പക്ഷെ എങ്കിൽ പണ്ടു കാലത്ത് ടിവി ഒന്നും എല്ലാവരുടെ വീടുകളിലും ഇല്ലായിരുന്നു അതും കാലം മാറുന്നത് അനുസരിച്ച് അനുസരിച്ചാണ് ടിവി വന്നുകൊണ്ടിരുന്ന ടിവി ഇപ്പോഴാണ് ഈ കാലഘട്ടത്തിലൊക്കെയാണ് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഉള്ളത് അതേപോലെ ഇൻ്റ്ർനെറ്റും എല്ലാസ്ഥലത്തും പണ്ടൊക്കെ ഇൻ്റർനെറ്റ് എല്ലാസ്ഥലത്തും ഇൻ്റർനെറ്റൊന്നും ഇല്ല ഇത് ഈ പ്രാവശ്യം മാറുന്നത് അനുസരിച്ചു ഇപ്പോഴാണ് എല്ലായിടത്തും ഇൻ്റർനെറ്റ് വന്നുകൊണ്ടിരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻറ്റർനെറ്റിൽ ആവശ്യം നമ്മൾ ഇത് എടുത്തുകൊണ്ട് ആവശ്യങ്ങൾ വർത്തകളൊക്കെ അപ്പഅപ്പം വന്നു കൊണ്ടിരിക്കും നമുക്കും എന്തെങ്കിലുമൊക്കെ വർത്തയൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ടിവി അല്ലെങ്കിൽ ഫോണ് അതിലൊക്കെ കണ്ടാൽ മതി ഫോണിൽ കാണണമെങ്കിൽ നെറ്റ് ആവശ്യമുണ്ട് നെറ്റൊക്കെ ഇപ്പം എവിടെ നിന്നാലും നമുക്ക് കിട്ടും പണ്ടത്തെ കാലത്തെ നെറ്റ് എങ്ങും കിട്ടത്തെ ഇല്ലായിരുന്നു അത് ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ ആയിരുന്നു ഇപ്പം നമുക്ക് എവിടെ നിന്നാലും നെറ്റൊക്കെ കിട്ടും അതേപോലെ ദൂരദർശൻ്റെ പഴയകാല പരിപാടികൾ അപേക്ഷിച്ച് ഇന്നത്തെ പരിപാടികൾക്ക് മാറ്റമുള്ളത് എന്തെന്ന് വച്ചാൽ പണ്ടൊക്കെ ബ്ലാക്ക് ആൻ വൈറ്റ് ചിത്രങ്ങളായിരുന്നു അതേപോലെ തന്നെ ദൂരദർശൻ അതിനകത്തൊക്കെ നമുക്ക് കേൾവിയെ ഉള്ളായിരുന്നു കേൾക്കാനൊക്കെ ആയിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ സിനിമ കാണണമെങ്കിൽ ആണെങ്കിലും നിശ്ചിത സമയത്തെ പറ്റത്തുള്ളൂ വാർത്ത അതിന് അതിന് അനുസരിച്ചു ഇപ്പം നമുക്ക് പലപല ഒത്തിരി ഒത്തിരി ചാനലുകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഫോൺ ടിവിയിൽ കണക്ട് ചെയ്തു നെറ്റ് വഴി നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തു വാർത്തയൊക്കെ കാണാം എല്ലാം കാണാം പണ്ട് കാലത്തെ അപേക്ഷിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാം നല്ല ഒരു കളറ് ആയിട്ട് കാണാം അവിടെ എന്ത് നടന്നു എന്നുള്ളത് അതേപോലെ നമുക്ക് കാണാൻ പറ്റും പണ്ടത്തെ കാലത്ത് അതൊക്കെ ഒരു ബ്ലാക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായിരുന്നു അതേപോലെ തന്നെ വാർത്തയും നമുക്ക് ഏത് ഒത്തിരി പ്ലാറ്റുഫോമുകളിലൂടെ നെറ്റ് വഴി നമുക്ക് കാണാൻ പറ്റും അതെല്ലാം സത്യസന്ധവും ആയിരിക്കും എന്നാൽ പണ്ടുകാലത്ത് വാർത്ത വരുന്നത് സത്യസന്ധമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഒരു ഉറപ്പും ഇല്ലായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നമുക്ക് പണ്ടൊക്കെ നമ്മൾ അതെപോലെതന്നെ ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് വാർത്തയൊക്കെ നമുക്ക് അപ്പപ്പം അറിയാം അതേപോലെ ഓരോ കാരണങ്ങളും നമുക്ക് നല്ല നല്ല മാറ്റങ്ങളുണ്ട് ഇന്ന് അതേപോലെ തന്നെ ദൂഷ്യ ഫലങ്ങളുമുണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു എന്തും നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മൾക്ക് എന്തും അക്സസ്സ് ചെയ്യാനുള്ള നമുക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ട് എന്നാൽ പണ്ടുകാലത്ത് നമുക്ക് ഇപ്പം എന്തേലും ആവശ്യം നമുക്ക് ഇപ്പം വാർത്തയിലൂടെ ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ ജോലി സ്ഥലം ജോലിക്കുള്ള എല്ലാ ഇതും അറിയുന്നത് എന്നാൽ അതും നമ്മൾ തേടി പിടിച്ചു അന്വേഷിച്ചു അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം എല്ലാം പോകുമായിരുന്നു എന്നാൽ ഇന്ന് അപ്പപ്പം നമുക്ക് എന്തെലുമൊക്കെ ജോലിയൊക്കെ ആവിശ്യമുണ്ടെങ്കിലും എല്ലാം അത് ഇൻറ്റർനെറ്റിലും ഇൻ്റർനെറ്റിൽ ഇൻറ്റർനെറ്റിൽ അന്വേഷിച്ചു കഴിഞ്ഞാാൽ എല്ലാം ശരിയാകും നമുക്ക് അപ്പപ്പം അത് കിട്ടും നമ്മൾ ഇനി എന്തുവാണ് പത്രം വരുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല എല്ലാം നമുക്ക് നല്ലപോലെ കിട്ടും അതെല്ലാം നൂറ് ശതമാനം ശരിയുമായിരിക്കും എന്ന തൊണ്ണൂറ്റി അമ്പത് ശതമാനം ശരിയായിരിക്കും ഒരു ശതമാനം ഇത് കാണും നമ്മൾ കൂടുതൽ നമുക്ക് അന്വേഷിക്കാനും പറ്റത്തില്ല എന്തേലും അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റും എല്ലാ ഡീറ്റൈൽസും എല്ലാം അതിന് അകത്ത് കൊടുത്തിരിക്കും നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അത് അതേപോലെ വാർത്തകളും നമുക്ക് ഇന്നത്തെ വാർത്തകൾ അറിയണമെങ്കിൽ നാളെ വരെ കാത്തിരിക്കണമായിരുന്നു ഒരു ഇന്നത്തെ വാർത്ത അറിയണമെങ്കിൽ നാളെവരെ കാത്തിരിക്കണം ആയിരുന്നു എന്നാൽ ഇന്നൊക്കെ നമുക്ക് അപ്പപ്പം ഉള്ള വാർത്ത അപ്പപ്പം തന്നെ നമ്മുടെ ഫോണുകളിൽ നെറ്റ് ഉപയോഗിച്ചും ടിവിയിൽ വാർത്ത ചാനലുകൾ ഇട്ടാലും വാർത്ത ചാനലുകളെല്ലാം ടിവിയിൽ ഇഷ്ടം പോലെയുണ്ട് അതിനകത്തൊക്കെ നമുക്ക് കണ്ടാൽ ആ വാർത്തകളെല്ലാം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചു ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം നല്ലതാണ് എന്നാൽ എല്ലാ നല്ല മാറ്റങ്ങൾക്കും ദൂഷ്യ ഫലമുണ്ട് എന്നാൽ കൂടുതലും നല്ല കാര്യങ്ങളാണ് നടന്നേക്കുന്നത് നമുക്ക് പണ്ടുകാലത്ത് ഒന്നും നമുക്ക് അധികം അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാം നമ്മടെ കൈപ്പിടിയിൽ എത്തുന്നുണ്ട് അതാണ് ഒന്നും നല്ലത് പണ്ടത്തെ കാലത്തെ ഇപ്പോഴത്തെ കാലവും വച്ചു ഒരുപാട് മാറ്റങ്ങളുണ്ട് അതെല്ലാം നല്ലതാണ്